നിനക്ക് തനിച്ച് പോകാൻ താല്പര്യമില്ല ഈ കുടുംബത്തോടോ സുഹൃത്തുകളുടെ കൂടെ ട്രാവല് ചെയ്യാനാണെനിക്ക് താല്പര്യം പിന്നെ ഞാൻ കഴിഞ്ഞവിടെ വരെ എൻ്റെ സുഹൃത്തുക്കളോട് കൂടിയാണ് ഞാൻ യാത്ര പോയത് അവർടെ കൂടെ ഞാൻ മൈസൂരാണ് ട്രിപ്പ് പോയത് അവിടെ അവർ അവരുടെതായ സന്തോഷങ്ങളും നമ്മുടെതായ സന്തോഷങ്ങളുമായി നിറയുമ്പം അത് പലപല എസ്പീര്യൻസ് നമുകുണ്ടാവും അപ്പം ഈ നമുക്കിങ്ങനെ ദൂരെ ദൂരത്തൊക്കെ പോകുമ്പം കൂട്ടുകാരുമായിട്ട് പോകുമ്പോൾ അതിൻറ്റേതായ സന്തോഷം എന്നാലും എനിക്ക് കുടുംമ്പത്തോടും പോവാനാണ് കൂടുതലും താൽപര്യം സുഹൃത്തുകളുടെ കൂടെ കുടുംബത്തോട് കൂടി പോവാനാണ് കുടുംബത്തോട് പോകുമ്പം അച്ഛനും അമ്മ ബന്ധുക്കാരുമൊക്കെ ആയിട്ട് പോകുമ്പം അതിന്റെതായ വേറെ സന്തോഷം ഇങ്ങനെ തുള്ളിച്ചാടി നടന്ന് അച്ഛൻ അച്ഛനും അമ്മേം മേടിച്ചു തരുന്ന എല്ലാം മേടിച്ച് കിട്ടി ആഗ്രഹിക്കുന്ന എല്ലാം മേടിയ്ക്കേം എല്ലാം ചെയ്യും പിന്നെ സുഹൃത്തുകളായി പോകുമ്പോൾ അവർ മേടിക്കുന്നത് നമുക്കും വേണം എന്നൊരു താല്പര്യോം അങ്ങനെ അതിന്റെതായ സന്തോഷോം അവരുടെ കുറെ കഥകളും കേട്ട് രാത്രികളിലിങ്ങനെ സഞ്ചരിക്കാൻ ഏറ്റോം കൂടുതൽ എനിക്ക് താല്പര്യം നൈ രാത്രീലൊക്കെ യാത്രചെയ്യുമ്പോൾ ഈ നമ്മളീ ഓരോ ഇ ഹെഡ് ലൈറ്റിന്റേം ഒരു വെളിച്ചോം അതിൻറ്റേതായ ഇതും എല്ലാം നമുക്ക് കിട്ടും അപ്പം ഇനി ദൂരിങ്ങനെ ഇരുട്ടിലൂടെ നമുക്ക് പോകുമ്പം കൂട്ടുകാരോടുമായിട്ട് നമ്മൾ സംസാരിച്ച് പോകുമ്പം ഇരുട്ടിനേപ്പോലും നമ്മൾ വെളിച്ചമാക്കി മാറ്റും അതുപോലെ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്